ഞാന് എൻ്റെ അഡ്രസ്സ് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റ അകത്ത് എൻ്റെ ലാൻഡ് ലൈനിൻ്റെ ബില്ലിങ്ങില് അത് തന്നെയാണോ ഇപ്പോൾ അഡ്രസ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് അതെങ്ങനെയാന്ന് അറിയാൻ പറ്റിയാൽ എൻ്റെ അതിൽ കൊടുത്തിരുന്നത് നേരത്തെ പാണാവള്ളി പുന്നപ്ര ആലപ്പുഴ എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് സൂര്യൻ പറമ്പ് പുന്നപ്ര പി ഒ ആലപ്പുഴ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം നാല് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ആ ബില്ലിങ്ങിൻ്റതും അതിൻ്റെ ഒഫിഷ്യലായിട്ട് തന്നിരിക്കുന്നതും ഒന്ന് തന്നെയാണെന്നുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഒന്ന് ചെയ്തു തരാൻ സാധിക്കുമല്ലോ അല്ലെ